ഹലോ ഗൈഡ് ആണോ നമുക്ക് ഞാൻ അതായത് പിന്നെ കേരളത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്ന് ഒക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണേ നമ്മൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ അതായത് ഇന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് അതായത് ശരീരം മുഴുവൻ തളർന്നൊരു പിന്നെ അനിയൻ ഉണ്ട് വീട്ടിൽ അപ്പം അവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ആയിരുന്നു അപ്പം എല്ലാ സൗകര്യങ്ങളും ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഞാൻ നമുക്ക് വീട് ഇല്ല നമ്മൾ അവിടെ എന്തെങ്കിലും നല്ല ഒരു ചികിത്സയ്ക്ക് തന്നെ നമ്മൾ അവിടെ വന്നിട്ട് അതായത് റെന്റിൽ വീട് എടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ നമുക്ക് കോഴിക്കോട് നോക്കാം കോഴിക്കോട് ഏതാണ് മെഡിക്കൽ കോളേജ് അല്ലാണ്ട് പ്രൈവറ്റ് ഏതൊക്കെയാണ് ഉള്ളത് ബേബി മെമ്മോറിയൽ മിംമ്സ് ഇല്ലേ അവിടേക്ക് ആ ആ മ് അപ്പം ശരീരം തളർന്നിട്ടുള്ള ആൾ ആ ആ അങ്ങനെ ഉള്ളവരെ ഒക്കെ നോക്കില്ലേ അതായത് അവർക്ക് എന്നുവെച്ചാൽ എല്ലാ സൗകര്യവും വേണ്ടേ ആയുർവേദം അല്ല എങ്ങനെ ആണെങ്കിലും കുഴപ്പം ഇല്ല നമുക്ക് ഒന്ന് മാറി കിട്ടിയാൽ മതി നമ്മൾ ഇവിടെ ബാംഗ്ലൂർ ഒക്കെ ഏകദേശം എല്ലാം കാണിച്ചു അപ്പം എല്ലാവരും പറഞ്ഞു കേരളത്തിൽ നല്ല ഹോസ്പിറ്റലുകളും കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം അവിടേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം എല്ലാവരും അങ്ങോട്ടേക്കാണ് റഫർ ചെയ്യുന്നത് അപ്പം നമുക്ക് വലിയ പിടിത്തം ഒന്നും ഇല്ല ഏതാണ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഒക്കെ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്

ആ ഹാ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്ന് വിളിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലെ നമ്പർ ഒന്ന് തരില്ലേ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ വേണ്ടിയാണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ താങ്ക് യൂ